ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊരു പ്രമോഷൻ വർക്കാണ് ചെയ്യുന്നത് അത് കംഫേർട്ടിൻ്റെ ഹോർലിക്സിൻ്റെ ഒക്കെ പ്രൊമോഷൻ വർക്കാണ് അതിനെക്കുറിച്ച് പറയാമെന്നു വച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ട് അയാളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ആ പ്രൊഡക്ട് വാങ്ങിപ്പിക്കുക പിന്നെ നമുക്ക് അവരുടെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് നമ്മളൊരു ആപ്പ് വഴി അയച്ച് കൊടുക്കാം ഇതാണ് എൻ്റെ ജോലി അതുപോലെതന്നെ പഠിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ്ടു കൊമേഴ്സ് ആയിരുന്നു കൊമേഴ്സ് കഴിഞ്ഞ് ഞാൻ പുൽപള്ളി എസ് എൻ ഡി പി സ്കൂൾ കോളേജിൽ ഞാൻ ബികോമിനു ചേർന്നു ബികോം അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി അതുകഴിഞ്ഞ് ഞാനിപ്പോൾ ടാലി ആണ് പഠിക്കുന്നത് ഒരു വർഷം ബ്രേക്കെടുത്തു പിന്നെ ഞാൻ ടാലിയാണ് പഠിക്കുന്നത് ടാലി ഫോറിൻ അക്കൗണ്ടിംഗ് ജി എസ് ടി ഒക്കെയാണ് പഠിക്കുന്നത്